നമ്മുടെ പ്രദേശത്തുള്ള നദികളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പല നദികള് നമുക്ക് ഇതിലൂടെ പോകുന്നുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇരുവ ഇരവഴിഞ്ഞിപ്പുഴയെന്ന് പറഞ്ഞിട്ടുള്ളൊരു നദിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് മൊയ്ദീനിലൊക്കെ കണ്ട ആ ഒരു പുഴ തന്നെയാണ് നമുക്ക് ഇതിലെ ഒഴുകുന്നത് പിന്നെ കബനിപ്പുഴ അങ്ങനെ പല രീതിയിലുള്ള പുഴകള് കാര്യങ്ങളൊക്കെ നമുക്കിതിലെ ഒഴുകുന്നുണ്ട് പിന്നെ ഡാമുകളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കക്കയം ഡാമുണ്ട് മലമ്പുഴ ഡാമ് അങ്ങനത്തെ ഡാമുകളൊക്കെ നമ്മുടെ ജില്ലയില് പെടുന്നൊരു ഡാമുകളാണ് ഈ ഡാമുകളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഉല്പാദിപ്പിക്കുക അതായത് കുടിവെള്ളം എത്തിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഡാമ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു നമ്മള് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വരൾച്ചയുള്ള കാലഘട്ടങ്ങളിൽ ഈ വെള്ളങ്ങളെന്ന് ഒക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും ഒഴുകിയിട്ട് ഇത് നേരെ കടലിലേക്ക് ചെന്ന് പതിക്കുകയാണ് അപ്പോൾ ആർക്കും ഒരു ഉപയോഗം ഇല്ലാത്ത രീതിയിലാണ് ഇത് കടലിലേക്ക് പോകുന്നത് അപ്പോൾ കടലിൽനിന്ന് നമുക്കെന്തായാലും ഇത് എടുത്ത് കുടിക്കാനൊന്നും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെന്തായാലും ഉപ്പ് വെള്ളമായി മാറും അപ്പോൾ നമുക്ക് കടലിൽനിന്ന് അങ്ങനെ കുടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഡാം കെട്ടുന്നതുകൊണ്ട് നമുക്ക് കുടിവെളളമായിട്ടും എടുക്കാം അങ്ങനത്തെ കാര്യങ്ങൾക്കെടുക്കാം നമുക്ക് അതായത് ഇത് ഊർജ്ജവും ഊർജ്ജ ഉത്പാദനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്നാണ് കിട്ടുക